ചുണ്ടൻവള്ളങ്ങൾ പോലെ കേരള സ്പെഷൽ സാധനങ്ങൾ എന്നു പറയുമ്പോൾ ചുണ്ടൻവള്ളം ആക്ച്വലി ഞങ്ങളുടെ നാട്ടിലാണ് പള്ളിയോടങ്ങൾ ഉള്ളത് ചുണ്ടൻവള്ളങ്ങൾ ഉള്ളത് ഞങ്ങളുടെ നാട്ടിലാണ് അത് അതുപോലെ ഉള്ള സ്മാരകങ്ങൾ എന്നു പറയുമ്പോൾ നമുക്കിപ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രം പറയാം അതുപോലേ തൃശ്ശൂർ തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രം പറയാം അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് സ്മാരകങ്ങളായി നിർമ്മിക്കാവുന്നതാണ് പിന്നെ പറയുകയാണെങ്കിൽ കേരളത്തിന് തന്നെ ഏറ്റവും തനതായ ശൈലിയിലുള്ള വസ്ത്രങ്ങളണിഞ്ഞ ആളുകൾ പിന്നെ ഓണം അങ്ങനെ ഉള്ളത് മാവേലി അങ്ങനെയുള്ളത് സ്മാരകങ്ങളായി നമുക്ക് ശിൽപ്പങ്ങൾപോലെ ഉണ്ടാക്കി വെക്കാവുന്നതാണ് പിന്നെ പറയുമ്പോൾ തെയ്യം അല്ലെങ്കിൽ കഥകളി അങ്ങനെയുള്ള ആട്ട് ഫോംസ് കലാരൂപങ്ങൾ പിന്നെ എന്താ ഭരതനാട്ട്യം അതുപോലേ മോഹിനിയാട്ടം അങ്ങനെയുള്ള ആട്ട് ഫോംസ് നമ്മുടെ കേരളത്തിന് തനതായ രീതിയിൽ ഉള്ള മിനിയേച്ചറുകളായി നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് പിന്നെ ചുണ്ടൻവള്ളങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ പള്ളിയോടങ്ങളുണ്ട് നമുക്കിവിടെ നിറയെ പള്ളിയോടങ്ങളുണ്ട് അപ്പോൾ ആറന്മുള വള്ളസദ്യ ആണെങ്കിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മിനിയേച്ചറുകളായി ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പിന്നെ ചുണ്ടൻവള്ളങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അളവുകളും മറ്റു കാര്യങ്ങളുമൊക്കെ വൃത്തിയായി ശ്രദ്ധിക്കണം മിനിയേച്ചറിൻ്റെ ഉണ്ടാക്കുമ്പോൾ അതിൽ ഏറ്റുവും വലിയ കാര്യം കാര്യം എന്നു പറയുമ്പോൾ അതാണല്ലൊ അളവുകളെപ്പോഴും ശ്രദ്ധിച്ചിരിക്കണം എന്നുള്ളതും പിന്നെ ഉപയോഗിക്കുന്ന നിറങ്ങളും നിറക്കൂട്ടുകളുമൊക്കെ സിമിലറായിരിക്കണം എന്നുള്ളത് മാത്രമെ ഉള്ളു അതാണ് ഏറ്റവും മെയ്നായിട്ടുള്ള കാര്യം പിന്നെ അളവുകളൊക്കെ അറിഞ്ഞാൽ തന്നെ നമുക്ക് കാര്യമായി അത് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് അത് തീർച്ചയായിട്ടും ഒരു സ്മാരകം തന്നെ ആണ് പിന്നെ അമ്പലങ്ങളാണ് മെയിൻലി നമുക്ക് പറയാൻ പറ്റുന്നത് കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലും അതിൻ്റേതായുള്ള അമ്പലങ്ങളും പള്ളികളും അതുപോലെതന്നെ പള്ളികളും അങ്ങനെയുള്ള ആരാധനാലയങ്ങളും ഒരുപാട് ഉണ്ട് നമ്മൾക്ക് വളരേ സ്പെഷ്യലായിട്ടുള്ള പല പല സ്ഥലത്ത് നിന്നും ആളുകളെത്തുന്ന സ്ഥലങ്ങളുണ്ട് ഇപ്പോൾ ഗുരുവായൂരായിക്കോട്ടെ ഗുരുവായൂരിൽ കൃഷ്ണനായിക്കോട്ടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അതൊക്കെ തീർച്ചയായും സ്മാരകങ്ങളായി ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന വസ്തുക്കളാണ് ചുണ്ടൻവള്ളങ്ങൾപോലെ തന്നെ വളരേ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം